എനിക്ക് ഇഷ്ടപ്പെട്ട എഴുത്തുകാരനാ എം ടി വാസുദേവൻ നായർ അദ്ദേഹം എഴുതിയ കഥകൾ എല്ലാം സി കഥകൾ സിനിമയായത് എല്ലാ സിനിമയും ഞാൻ കാണുമായിരുന്നു ഒരു വടക്കൻ വീരഗാഥ പഴശ്ശിരാജ അതുപോലെ പ്രധാനപ്പെട്ട എല്ലാ സിനിമകളും ഞാൻ അദ്ദേഹത്തിന് ഏറ്റവും നല്ല എഴുത്തും കലാമൂല്യമുള്ള കഥകളുമാണ് അദ്ദേഹത്തിൻ്റെ എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിനെ ഈയിടെ പേ പത്രത്തിൽ നവതി ആഘോഷങ്ങളൊക്കെ കണ്ടു ആ നടന്മാര് മമ്മൂട്ടി മോഹൻലാൽ ഒക്കെ പങ്കെടുത്തു അദ്ദേഹമാണ് കേരളത്തിലെ അതുപോലെ തകഴി ശിവശങ്കരപ്പിള്ള അദ്ദേഹത്തിൻ്റെ കയർ ചെമ്മീൻ എന്നീ നോവലുകൾ സിനിമയായതും ഞാൻ കണ്ടിരുന്നു എഴുത്തുകാരിൽ ഏറ്റവും പ്രാഗൽഭ്യം ഉള്ളയാള് തകഴി ശിവശങ്കരപ്പിള്ളയും എം ടി വാസുദേവൻ നായർ അങ്ങനെയുള്ള പ്രമുഖരുടെ ഒരു നാടാണ് കേരളം അപ്പോൾ അതുപോലെ എഴുത്തുകാർ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അവരുടെ കഥാതന്തുക്കൾ മനുഷ്യ ജീവിതവുമായി നല്ല അടിത്തറ ബന്ധങ്ങൾ ഉള്ളതാണ് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളല്ല അവരുടെ കഥയിലുള്ളത് ജീവിതത്തിൽ നടന്നതും നടക്കാൻ പോകുന്നതുമായ ഒരു കാലഘട്ടത്തെ പറ്റിയാണ് എം ടി വാസുദേവൻ നായരും തകഴി ശിവശങ്കരപ്പിള്ളയുടെയും നോവലുകളിൽ നമുക്ക് കാണാൻ കഴിയുക ഞാൻ എം ടി വാസുദേവൻ നായർ എഴുതിയ കഥകൾ വായിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം എഴുതിയ കഥകൾ സിനിമയാകുന്നത് എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ ശിവശങ്കരപ്പിള്ളയുടെ ചെമ്മീൻ എൻ്റെ ചെറുപ്പകാലത്ത് ചെമ്മീൻ സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ അത് സ് തിയേറ്ററുകളിൽ ഇവിടെ അടുത്തെങ്ങും തിയേറ്റർ ഇല്ലായിരുന്നു കോട്ടയത്ത് പോയി ആ സിനിമ കണ്ടു ചെമ്മീന് അതുപോലെ കയർ എന്ന നോവൽ അത് വായിച്ചു അതിലൊക്കെ വളരെ ഇഷ്ടം തോന്നിയിട്ടുണ്ട് നല്ലെ എഴുത്തുകാരും ജീവിത ഗന്ധികളുള്ള കഥകളുമാണ് അവരുടേത് രണ്ടുപേരുടെയും അത് വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷവും അത് സിനിമയാവുമ്പോൾ അതിനേക്കാൽ വളരെ സന്തോഷവും അത് അഭിനയിച്ച മമ്മൂട്ടിയോട് വരെ വളരെ സ്നേഹവും അഭിമാ ആരാധനയും തോന്നിയിട്ടുണ്ട് എം ടി വാസുദേവൻ നായരുടെ കഥകൾ എല്ലാം തന്നെ മേ മിക്കതും നമ്മളേ അതിശയപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള സിനിമാ ഫീൽഡിൽ വന്ന സിനിമകളാണ് അതിൽ എല്ലാം മമ്മൂട്ടിയാണ് നായകൻ അത് വടക്കൻ വീരഗാഥയാണെങ്കിലും പഴശ്ശിരാജ ആണെങ്കിലും ഏതു സിനിമയിലും മാമാങ്കം ആണെങ്കിലും മമ്മൂട്ടിയാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങളും ആ കഥയേ അത്യുജ്ജ്വലമായ രീതിയിൽ അഭിനയിപ്പിച്ച് എല്ലാവർക്കും നല്ല രീതിയിൽ കാണുവാൻ ആയിട്ടുള്ള ഒരു സന്ദേശം തരുന്ന ഒരു കഥാകൃത്ത് കൂടിയാണ് എം ടി വാസുദേവൻ നായർ ആ ഓ പലതരം അവാർഡുകൾ കിട്ടിയിട്ടുള്ള ഒരു നല്ല എഴുത്തുകാരനാണ് എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തെ കേരളത്തിന് കിട്ടിയത് തന്നെ നമ്മുക്ക് അഭിമാനിക പൂർവ്വം സ്മരിക്കാവുന്ന ഒരു കാരണമാണ്